ഇപ്പം സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്നതിന് അതായത് പിന്നെ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടി വന്ന സന്ദർഭത്തെക്കുറിച്ച് പറ്റിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് എൻ്റെ വീട് കെട്ടിയതാണ് വീട് കെട്ടിയതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ആറ് മാസംകൊണ്ടാണ് വീടുപണിയൊക്കെ തീർത്തത് അപ്പോഴെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിക്കൂടലിൻ്റെ തലേദിവസം വരെ നമുക്കിവിടെ പണിയുണ്ടായിരുന്നു അതായത് വയറിങ് വയറിങ് പണിയൊക്കെ വീട്ട്ക്കൂടലിൻ്റെ തലേദിവസമാണ് എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം അത് കഴിഞ്ഞപ്പം അപ്പോഴെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴാണ് ഈ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നത് അതായത് നൈറ്റ് അപ്പോഴെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടി കാര്യങ്ങൾ അതായത് പുറത്ത് കൊണ്ടിടുക എല്ലാ വേസ്റ്റ് കൊണ്ട് കളയുക പിന്നെ പിറ്റേ ദിവസമാകുമ്പോൾ എല്ലാവരും രാവിലെയാകുമ്പോൾ എല്ലാവരും വീട്ടിലേക്ക് വരും അപ്പോഴെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ടെൻഷൻ ആയിരുന്നു ദൈവമേ എല്ലാവരും വരുമ്പോഴത്തേക്കും ഇതൊന്നും തീർന്നില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ വൃത്തിയായി കണ്ടില്ലെങ്കിൽ ആൾക്കാരൊക്കെ നമ്മുടെ വീട് കാണാൻ വരുന്നതല്ലേ അപ്പോൾ ഒരിക്കലും വൃത്തിയിൽ വൃത്തിയില്ലാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് വീട്ടീക്കൂടലാണ് അപ്പോൾ ഞങ്ങൾ വേഗം എല്ലാ വേസ്റ്റൊക്കെ പെറുക്കി എല്ലാം കളഞ്ഞു എല്ലാം അടിച്ചുവാരി തുടച്ച് എല്ലാം ഒതുക്കി പെറുക്കി അഴ് മുറ്റം വരെ അടിച്ച് ഒതുക്കി പെറുക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് രാവിലെ രണ്ടുമണിയായി ആ രണ്ടുമണിക്കാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത് പിന്നെ രാവിലെയാകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കാരണം ഞങ്ങൾ നമ്മൾക്ക് വേഗം തീർക്കണമെന്ന് ഉണ്ടായിരുന്നൊരു ലക്ഷ്യമായിരുന്നു അത് വൃത്തിയായി നടന്നു എല്ലാവരും വന്ന് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു